പാചകം പലപ്പോഴുമൊരു വ്യവസായമാക്കി മാറ്റണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്കതൊന്നും പറ്റത്തില്ല പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവണം പിന്നെ നമ്മുടെ വീടൊക്കെ ഇച്ചിരി ഉള്ളിലേക്ക് ഉള്ളതാണ് അപ്പോൾ അവിടെ വണ്ടിക്ക് സൗകര്യമൊക്കെ കുറവാണ് പിന്നെ എന്താണ് പറയുക ഇപ്പം അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല പിന്നെ ചെയ്യാനൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അച്ചാറുകളും അച്ചപ്പം പിന്നെ ഉപ്പിലിട്ട സാധനങ്ങൾ പപ്പടം തുടങ്ങിയതൊക്കെ വിൽക്കുന്നതൊക്കെ നല്ലൊരു വരുമാന മാര്ഗവുമാവും പിന്നെ ഈ കുടുമ്പശ്രീന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ പലരുടേയും കണ്ടിട്ടുണ്ട് പിന്നെ വീടുകളില് തുടങ്ങുന്നതും നല്ലതാണ് കാരണമൊരു എല്ലാവര്ക്കുമൊരു വരുമാന മാര്ഗമൊക്കെയാവും ആവിശ്യത്തിനുള്ള പൈസയൊക്കെയാവും പിന്നെ നമ്മുടെ കൈപ്പുണ്യം പലരും അറിയും നല്ലൊരു പേരൊക്കെ ഇട്ടൊരു കമ്പനി ഒക്കെ ഇപ്പം തുടങ്ങുവാണെങ്കിൽ നല്ലതായിരുന്നു ഒരു നല്ലൊരു വരുമാനമാര്ഗ്ഗം കൂടി ആവും വീട്ടമ്മമാര്ക്കും ജോലി ഇല്ലാത്തവര്ക്കൊക്കെ അതൊരു നല്ല ഓപ്പര്ച്ചുണിറ്റി ആവും പിന്നെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് നല്ലതാണ് നല്ല എന്താണ് പറയുക കുറേ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ നമ്മുടെ കൈപ്പുണ്യം ഒക്കെ പലര്ക്കും അറിയിക്കാന് പറ്റും പിന്നെ നമ്മുടെ ഫുഡ് ഒക്കെ പലരുടെ പല സ്ഥലങ്ങളിലും എത്തും പിന്നെ നല്ലെ നല്ല നല്ല രീതിയിൽ പുതിയ പുതിയ സ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി പലര്ക്കും ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കാനൊക്കെ പറ്റും ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫുഡ് ഒക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് തോന്നും ഒരു എന്താണ് പറയുക ഇതൊരു വ്യാവസായികമായിട്ടൊന്ന് തുടങ്ങിയാലോ നല്ലതാണല്ലോ എന്നൊക്കെ തോന്നും പിന്നെ പാചക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒക്കെ നല്ല നല്ല രീതിക്ക് ഇങ്ങനെ മുന്നോട്ട് പോവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്താണ് അച്ചാറുകൾ പല തരത്തിലുള്ള അച്ചാർ നെല്ലിക്കയും നാരങ്ങ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ മാങ്ങയുണ്ട് അപ്പം നമുക്ക് മാങ്ങയൊക്കെ ഒരു അച്ചാറാക്കാം മാങ്ങയ്ക്ക് നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ടല്ലോ അപ്പം അതൊക്കെ നമുക്ക് ലാഭം ആവും അങ്ങനെ പല തരത്തിലുള്ള മീൻ അച്ചാർ ഇറച്ചിയച്ചാർ തുടങ്ങിയ പല അച്ചാറുകളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക പൈനാപ്പിൾ അങ്ങനെ ഒക്കെ കൊടുക്കാം പിന്നെ പപ്പടം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഉണ്ണിയപ്പം അച്ചപ്പം തുടങ്ങിയവ ഒക്കെ ഉണ്ടാക്കാം നല്ല നാച്ചുറൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ എന്താണ് പിന്നെ പലര്ക്കും നമ്മുടെ കൈപ്പുണ്യം നമ്മുടെ ഒരു ടേസ്റ്റും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പലര്ക്കും ഒരു പ്രചോദനമാകും പിന്നെ ഈ കുടുംബശ്രീക്കാരുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഒക്കെ അതൊക്കെ കാണുമ്പം നമുക്കൊരു ചെയ്യണം എന്ന് തോന്നാറുണ്ട് പിന്നെ നല്ലതായിരുന്നു പൈസ ഒക്കെ ഉണ്ടാക്കാം നല്ലൊരു എന്താണ് ഒരു വരുമാനമാര്ഗം കൂടിയാവും പലര്ക്കും വീട്ടമ്മമാര്ക്കും പിന്നെ ഇപ്പം അവധിയൊക്കെ ആയതുകൊണ്ട് പിള്ളേര്ക്കും ഒക്കെ ഒരു വരുമാന മാര്ഗം ഒക്കെയാവും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും പിന്നെ നമുക്കും അത്യാവശ്യം നേരമ്പോക്കുമാവും നമുക്കും കഴിക്കുവൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ കൈപ്പുണ്യം ഒക്കെ പലര്ക്കും എത്തിക്കാൻ പറ്റും പിന്നെ നല്ല പലരും കാണിക്കുന്നത് പോലെ പ്ലാസ്റ്റിക് കവറിലൊക്കെ മാറ്റി നല്ല ഭരണികളിലും നല്ല അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കില് എല്ലാവര്ക്കും ഇച്ചിരി കൂടി കൗതുകമായിരിക്കും ഇച്ചിരി കൂടി എന്താണ് പറയുക നല്ലതാണെന്നൊരു ഫീൽ ഉണ്ടായി എല്ലാവരും വാങ്ങുകയൊക്കെ ചെയ്യും അപ്പം അതൊരു നല്ലൊരു നമുക്ക് വരുമാനവും കൂടും പിന്നെ നമ്മുടെ വിപണിയും നല്ല ഇതാവും പിന്നെ എന്താണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുറച്ച് പേരെയൊക്കെ നിര്ത്തുവാണെങ്കിൽ കുറേ സാധനങ്ങൾ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഇരട്ടി സാധനങ്ങളൊക്കെ കുറച്ച് പേരെ നിര്ത്തുവാണെന്ന് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പിന്നെ അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കാം ചക്ക വറുത്തത് ചിപ്സ് പിന്നെ അച്ചാറുകൾ പിന്നെ എന്താണ് പൊടികൾ ചമ്മന്തിപ്പൊടി തുടങ്ങിയവ ഒക്കെ പിന്നെ പൊരികൾ അച്ചപ്പം ഉണ്ണിയപ്പം വട്ടയപ്പം അങ്ങനത്തെ അപ്പങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതൊക്കെ നമുക്കൊരു വരുമാന മാര്ഗം ഒക്കെയാവും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് അതിൽക്കൂടെ കഴിച്ചിടാം പിന്നെ പിന്നെ ഒരു നേരമ്പോക്കും ആവും സമയമൊക്കെ പൊയിക്കോളും തന്നെ ഇരിക്കുമ്പോഴൊക്കെ സമയം പോവുന്നില്ല എന്ന് പറയുന്നവര്ക്കൊക്കെ ഇതൊക്കെ നല്ലതാണ് പിന്നെ കുടുംബം നല്ല സപ്പോർട്ട് ആണ് കുടുംബത്തിന് ഇതൊക്കെ താല്പ്പര്യമുണ്ട് നല്ല പ്രതികരണമാണ് അപ്പം അങ്ങനെ ഒക്കെ നല്ലതാണ് എല്ലാവര്ക്കും ഒരു ചെറിയൊരു കമ്പനി പോലെ ഒക്കെ തുടങ്ങിയാൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുതന്നെ തുടങ്ങുവാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കുറേ പേര്ക്ക് ഇപ്പം ജോലി കിട്ടും പിന്നെ കുറേ പേരുടെ സമയമൊക്കെ പോയിക്കോളും പിന്നെ ന അത്യാവശ്യം എല്ലാവര്ക്കും കുറച്ച് പേര്ക്കൊക്കെ വരുമാനവും ആവും ഒരു സ്ഥിരം ജോലിയാവും ഇപ്പം ജോലി ഇല്ലാതെ വിഷമിക്കുന്നവര്ക്കൊക്കെ ഇതൊക്കെയൊരു ഒരു ജോലിയായിട്ട് എടുക്കാം അന്ന് ഇതിലൂടെ നമുക്ക് അത്യാവശ്യം വരുമാനം സമ്പാദിക്കാം പിന്നെ പല സ്ഥലങ്ങളിലേക്കും ഇത് കയറ്റുമതി ചെയ്യാം ഗള്ഫിലേക്കൊക്കെ ആയാലും നമ കയറ്റുമതി ചെയ്യാം അപ്പം അവിടെ വരെ നമ്മുടെ ഫുഡ് എത്തുമ്പം നമുക്കൊരു അഭിമാനമാണല്ലോ പിന്നെ നമ്മൾ ടേസ്റ്റ് ഒക്കെ പലരും അറിഞ്ഞ് നല്ല അഭിപ്രായം ഒക്കെ പറയുമ്പം അത് നമുക്കൊരു സന്തോഷമാവും പിന്നെ എന്തുകൊണ്ടും പാചകം ഒരു വ്യവസായമാക്കി മാറ്റുന്നത് നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം